ഗ്രാമീണ കേരളത്തിൽ പ്രധാന വാർത്ത ഉറവിടം പത്രത്തിലൂടെയാണ് മനോരമയായാലും മാതൃഭൂമിയായാലും ജനഭൂമി ഇങ്ങനെ കുറെ വിവിധതരം പത്രങ്ങളുണ്ട് അതിലൂടെയാണ് എല്ലാവിധ വാർത്തകളും മിക്ക ആളുകളിലേക്കും എത്തുന്നത് പത്രത്തിലൂടെയാണ് ഓൺലൈൻ മീഡിയയിലൂടെ ടി വി ന്യൂസുകളിലൂടെയും കുറെ ആളുകളിലേക്ക് ഇന്നത്തെ വാർത്തകൾ എത്തുന്നുണ്ട് പിന്നെ ഇപ്പൊഴത്തെ ജനറേഷനിലേക്ക് വാർത്തകൾ എത്തുന്നത് ഓൺലൈൻ മീഡിയയിലൂടെയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ വാർത്ത വാർത്തകൾ അറിയുന്നതും കാണുന്നതും പ്രതികരിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെയാണ് ഒന്നുംകൂടി ഗ്രാമീണമായ സ്ഥലങ്ങളിലേക്ക് പത്രത്തിലൂടെയും റേഡിയോയിലൂടെയുമൊക്കെയാണ് നമ്മളുടെ ഈ വാർത്തകൾ അവർ അറിയാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അവർക്ക് സാധിക്കുന്നത്